എനിക്ക് പതിനാല് വയസ്സ് ഉള്ളപ്പോളായിരുന്നു ഇതു കാണുമ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വലിയയൊരു ആരാധകയായിരുന്നു അപ്പോളത്തെ സമയത്തു എനിക്ക് അത് കാണുമ്പോൾ വലിയ ആവേശമായിരുന്നു ഞാന് ഒരോരോ ഇത് കാര്യങ്ങളായാലും എനിക്ക് സന്തോഷം തരികയും ഞാൻ അതിനോടൊപ്പം ഞാൻ മറ്റുള്ള കാര്യങ്ങളിൽ ആണെങ്കിലും എനിക്ക് നിർത്താറില്ല എപ്പോഴാണെങ്കിലും ഞാൻ അത് കണ്ടുകൊണ്ട് വാച്ച് ചെയ്തുകൊണ്ട് ഇരുന്നേനേ ഇരിക്കുവായിരുന്നു അപ്പൊൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ട്ടപ്പെട്ട കാര്യമാണ് എങ്ങനെ ഉള്ള ഈ സ്പോർട്സ് അതേപോലുള്ള കായികമായ കാര്യങ്ങളിൽ ഒക്കെ കാണുന്നതും അതുമായിട്ട് പങ്കുചേരുന്നതും അനുഭവിക്കുന്നതും എല്ലാം എനിക്ക് ഇഷ്ട്ടമുള്ള കാര്യങ്ങൾ ആയിരുന്നു